എനിക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് അപ്പം അത് എടുക്കേണ്ട സമയം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതുക്കാൻ ഉള്ള സമയം ഉണ്ടായിരുന്നു നമ്മൾ പുതുക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു പിന്നെ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് പാവങ്ങൾ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് ഒക്കെ അത് വലിയ ഉപകാരമാണ് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പ്പിറ്റലുകളിലും പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് സ്വയമായിട്ട് തന്നെ പിന്നെ അത് ഉപയോഗിക്ക ഉപയോഗിക്കാൻ ഉള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ ഡെലിവറീൻ്റെ സമയത്ത് ഒക്കെ ആദ്യത്തെ അതായത് നമ്മൾ ഹോസ് ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിക്കേണ്ട ഫീസ് മാത്രം നമ്മൾ കൊടുത്താൽ മതി നമ്മൾ അവിടെ അഡ്മിറ്റ് ആകുവാണെങ്കിൽ നമ്മൾ ഒരു പൈസയും കൊടുക്കേണ്ട നമുക്ക് മരുന്നും എല്ലാം ആ ആരോഗ്യ ഇൻഷുറൻസിൽ തന്നെ തരും പിന്നെ കുട്ടിക്ക് ഉള്ളത് ആണെങ്കിലും കുട്ടിക്ക് കുട്ടീൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമോ പിന്നെ ഇപ്പം മഞ്ഞ കളറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ആ ഇരുപത്തി നാല് മണിക്കൂറും നമ്മൾ ആ കുട്ടീനെ ഇപ്പം എൻ ഐ സി യുവിൽ ഇടുവാണെങ്കിൽ നമുക്ക് അതിന്റെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പൈസ എല്ലാം കിട്ടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയ ഉപകാരം ആയിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു നല്ല ഡോക്ടറെ ആണ് നമ്മൾ അവിടെ കാണിച്ചത് അപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉള്ള ചിലവ് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ബാക്കി ഉള്ള ചിലവൊക്കെ നമുക്ക് മരുന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ട് കൊണ്ടാണ് ആ ടൈമിൽ കിട്ടിക്കോണ്ടിരുന്നത്